ഹലോ സാറാമ്മയാണോ ആ ഈ ഞാനിത് ലിസിയാണ് വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നത് കരവാളൂർ ഭാഗത്ത് നിന്നാണ് പക്ഷേ എനിക്കൊരു അഞ്ചൽ ഏരിയയിൽ ആയിട്ട് ഒരു ഒരു പ്രോപ്പർട്ടി അതായത് ഞങ്ങൾക്കൊരു ബിൽഡിംഗിനൊക്കെ ഹൗസ് വെക്കാൻ വേണ്ടിയിട്ടാണ് അതിലൊരു മുപ്പത് സെൻറ്റ് വരുന്ന ഒരു പ്ലോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ അതിന്റെ അകത്ത് എനിക്ക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രേയുള്ളൂ അതിനകത്ത് കിണർ ഉണ്ടായിരിക്കണം ഇത് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം റോഡ് വേണം അതുപോലെ സ്കൂളും ഹോസ്പിറ്റലും പള്ളിയും അടുത്തുള്ള ഒര് ഏരിയ നോക്കി എനിക്ക് ഇന്നൊരു ഒര് പ്രോപ്പർട്ടി ഇന്ന് സെറ്റ് ചെയ്യാൻ ചെയ്ത് തരാൻ പറ്റുമോ

നാൽപ്പത് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് എവിടെ കരവാളൂര് എനിക്ക് അഞ്ചലാണ് കൂടുതല് ആ ഏറ്റവും നല്ലതായിട്ടെനിക്ക് തിരിയുന്നത് അഞ്ചലാണ് അഞ്ചലോ ഓ ഇച്ചിരി കൂടെ താഴ്ത്തി പിടിക്കാൻ പറ്റുമോ

ഓക്കെ ഓക്കെ ഓക്കെ ആ ആ അങ്ങനെയാണെങ്കില് എനിക്ക് അറിയിച്ചെനിക്ക് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നാൽപ്പത് സെൻറ്റിലോട്ട് വരുമ്പം ആ പറഞ്ഞോ എൻ്റെ ആ ഹസ്ബൻഡ് ഗൾഫിലാണ് ഞാൻ നാട്ടിൽ തന്നെയാണ് ഓക്കെ ഓക്കെ ആ ഓക്കെ അത് പ്രശ്നവില്ല ആ എനിക്ക് ആ ആ ഇത് പറയുന്നതിന് കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ല ഏതായാലും ഇത് ഫിക്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല

അങ്ങ അങ്ങനെയാണേൽ എനിക്ക് വേറൊരു സജ്ജസ്ഷൻ ഉണ്ടായിരുന്നു കാരണം അങ്ങനെയാണേൽ എനിക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് സെൻറ്റാണേലും മതി ബാക്കി പ്ലോട്ട് തിരിച്ചില്ലറ കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ അതൊരു എന്റെ ഒരു സജ്ജസ്ഷൻ ആണ് ഓക്കെ അതാണേൽ കുഴപ്പമില്ല ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ കറക്റ്റ് പറയാം ഓക്കെ കുഴപ്പമില്ല അതിൻ്റെ ബാക്കി ബാക്കിക്ക് ബാക്കിക്ക് കാര്യങ്ങളെല്ലം ഞങ്ങള് ചെയ്തോളാം കുഴപ്പമില്ല ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഇട്ടേക്കാം താങ്ക്യൂ ഓക്കെ